ഹലോ ആ പറഞ്ഞോളൂ ആരായിരുന്നു ആ മേഡം പറഞ്ഞോ അതെയതെ ആ ലഞ്ച് ടേബിളാണോ ആ ഞാനവിടെ കേട്ടില്ല ആണോ ഞാനെന്നാല് ആ ടൈമിലവിടെയില്ല ഞാന് നോക്കട്ടേ ഒരു മിനിറ്റേ നോക്കാം ആ പറഞ്ഞോളാം ആ ബ്രൌണ് ആ ആ മേഡം ടേബിളില് ടേബിളില്ലല്ലോ മേഡം ടേബിളില്ത്തന്നെയാണോ വച്ചത് മേഡം ഇനി കൈ വാഷ് ചെയ്യാന് പോയപ്പോള് അങ്ങോട്ടുവല്ലോം കൊണ്ടുപോയിരുന്നോ ആ അപ്പോള് കൈ ആ വാഷ്റൂമില് പോയപ്പോള് ബാഗ് കൊണ്ടുപോയിട്ടില്ലല്ലോ ഉറപ്പല്ലേ വാഷ്റൂമില് പോയപ്പോള് ബാഗ് കൊണ്ടുപോയിട്ടില്ലല്ലോ ഉറപ്പല്ലേന്ന് ആ നമുക്ക് സി സി ടി വി നോക്കാം

പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നു ബാഗിനകത്ത് കീയും ആണല്ലേ ഓ നമ്മളിപ്പോള് ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല നമുക്ക് സി സി ടി വി നോക്കാം ആ ആരെടുത്തുകൊണ്ടുപോയാലും നമുക്ക് കണ്ടുപിടിക്കാനാണേലും മേഡം ടെന്ഷനടിക്കണ്ട ആ നമുക്ക് സി സി ടി വി നോക്കിയിട്ടു പറയാം മേഡം അല്ലെങ്കില് പിന്നെ ഇത് ചുമ്മാ കോംബ്ലിക്കേറ്റഡാക്കണ്ടല്ലോ ഉം ഞാന് സി സി ടി വി നോക്കട്ടെ അങ്ങനെയാണെങ്കില് ഞാന് വാ പതിനാറായിരം അങ്ങനെയാണെങ്കില് മാനേജറിനെ ഒന്നു വിവരം അറിയിക്കാം അപ്പോള് ഇത് എന്റെ കയ്യില് നില്ക്കുമെന്നു തോന്നുന്നില്ല കേട്ടില്ല അം ഞാന് മാനേജരിനോടൊന്നു പറയട്ടെ കാരണം ഇതെന്റെ കയ്യില് നില്ക്കുന്ന കാര്യമല്ല കാരണം ആ ഓര്ണമെന്റ്സും ഉണ്ട് വണ്ടി താക്കോലുണ്ട് പൈസയുണ്ട് അപ്പോള് ഏ മാനേജറിനോട് പറയേണ്ടിവരും

ആ നോക്കാം നോക്കാം അതിനു ടെന്ഷനടിക്കണ്ട ഉം നോക്കാം ആ കേട്ടില്ല

ഹലോ മേഡം ഹാ സംശയിക്കാന് കാരണം എന്താ പുള്ളി മേഡത്തിന് പുറകെ വരികയോ അങ്ങനെ വല്ലതും ചെയ്തായിരുന്നോ ആണോ പുള്ളിയെ അറിയാമോ മേഡത്തിന് ഓക്കെ എന്നാല് നമുക്കാരെങ്കിലും വന്നേപ്പത്തെ പറയാം ആ എന്നാല് ഞാന് മേഡത്തിന് സി ടി വിയുടെ വിഷ്വല്സയച്ച് തരാം അപ്പോള് പുള്ളിയാണോന്നൊന്നു പറയണേ ആ ഓക്കെ മേഡം ഞാന് ആ ഞാന് അയച്ചുതന്നേക്കാം ഓക്കെ എന്നിട്ട് ഞാന് വിളിക്കാം ഉം ടാങ്ക്യൂ